ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പറയാണെങ്കിൽ ഇന്ത്യൻ സിനിമകളാണെങ്കില് ഇപ്പോള് വളരെ മികച്ചൊരു നിലവാരത്തോട്ടാണ് നമ്മുടെ ഇപ്പോള് ഇന്ത്യൻ സിനിമ ഒരു എന്ന് പറഞ്ഞിരിക്കുന്നേ അപ്പോള് അത്തരത്തിലോട്ട് വളരെ മികച്ച രീതിയിലാണ് അതായത് കോമഡി പടങ്ങളും ആക്ഷൻ പടങ്ങളും അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരത്തിലും ഉള്ള പടത്തിൻ്റെ ലെവലിലോട്ട് അതുപോലെ നമ്മുടെ മലയാള സിനിമകളും അതുപോലെ ബോളിവുഡിനെ ഒക്കെ വെല്ലും കൊണ്ടാണ് ഇപ്പോള് എന്താണ് കുതിച്ച് കയറുന്നത് അപ്പോള് പിന്നെന്താ പ്രശ്നം നമ്മുടെ ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഒരുപാട് എന്താ നല്ല നല്ല ഗാനങ്ങളും അതുപോലെ നമുക്ക് കേൾക്കാനും നമുക്ക് ഏതൊക്കെ തരത്തിലും കേള്ക്കാനും ഒക്കെ പറ്റിയ തരത്തിലുള്ള ഗാനങ്ങളൊക്കെ ഉണ്ട് അപ്പോള് ഞാൻ ഏറ്റവും കൂടുതല് കാണുന്ന സിനിമകളെന്നു പറഞ്ഞാല് ആക്ഷൻ മൂവീസും അതുപോലെ കോമഡി മൂവീസുമാണ് കാരണം നമ്മുടെ താൽപ്പര്യം അതിലോട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതല് വരുന്നത് പിന്നെ സ്ഥിരമായിട്ട് യിട്ടൊന്നും കാണാറില്ല ഇതുവരെ കണ്ടിട്ടില്ല അപ്പോള് പ്രിയപ്പെട്ട നടൻ എന്റെ പ്രിയ്യപ്പെട്ട നടനെന്നു പറയുമ്പോള് അല്ലു അർജ്ജുനും നടിയെന്നു പറയുന്നത് തമന്നയാണ് അപ്പോള് ഇഷ്ടമുള്ള സിനിമാ ഗാനങ്ങളെന്ന് പറയുമ്പോള് ഒരുപാട് അങ്ങനെ ഈ സ്പെസിഫിക്കായിട്ടൊന്നും ഇല്ല ഇഷ്ടംപോലെ സിനിമാ ഗാനങ്ങള് കേൾക്കുന്നുണ്ട് അപ്പോള് അതൊക്കെ വളരെ വളരെ ഇഷ്ടമാണ് സിനിമാ ഗാനങ്ങളെന്ന് പറയുമ്പോള് നമുക്ക് ഓരോ സമയത്ത് നമുക്ക് കേള്ക്കാൻ ഇഷ്ടപ്പെടുന്ന അതുപോലെ നമ്മള് സ്ഥി ഒരുപാട് വട്ടം കേള്ക്കുന്ന കുറേ ഗാനങ്ങള് അങ്ങനെ കുറേ ഉണ്ട് പിന്നേ ആ അർജിത് സിങ് അർജിത് സിങ്ങാണ് പ്രിയപ്പെട്ട ഗായകനെന്ന് പറയുന്നത് കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സൗണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസിനെ ഹീലിയ്യാൻ നമ്മുടെ ഒരു കുളിർമ കൊള്ളിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കേട്ടിരുന്നു പോകുന്ന തരത്തിലുള്ളൊരു എന്താണ് ഗായകനാണ് അതുകൊണ്ടുതന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പാട്ടുകള് കേൾക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്